ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മത കേന്ദ്രങ്ങൾ എന്ന് വച്ചാൽ ഹൈന്ദവാചാരങ്ങൾ ഉൾക്കൊള്ളുന്ന കൈലാസ നാഥ ക്ഷേത്രം ലോട്ടസ് ടെമ്പിൾ അതുപോലെ നമ്മുടെ കേരളത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പിന്നെ പത്തനംതിട്ടയിൽ സ്ഥിതി ചെയ്യുന്ന അയ്യപ്പ ക്ഷേത്രം ശബരിമല അങ്ങനെ ഒരുപാട് മതകേന്ദ്രങ്ങൾ നമ്മുടെ ഇന്ത്യയിലുണ്ട് അതുപോലെ തന്നെ ക്രിസ്ത്യൻസിനാണെങ്കിലും സെൻ്റ് ഫിലോമിന ചർച്ച് അങ്ങനെ ഭീമാപ്പള്ളി അങ്ങനെ ഒരുപാട് മതകേന്ദ്രങ്ങൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ ചുറ്റു വട്ടത്തായിട്ടും ഇന്ത്യയിലായിട്ടും ഒക്കെ നമ്മൾ കാണുന്നതാണ് നമുക്ക് പരിചിതങ്ങളായ ഇതൂണ്ട് ഇപ്പോൾ അതിൽ തന്നെ നമ്മൾ നോക്കുക ആണെന്നുണ്ടെങ്കിൽ ശബരിമല ശബരിമല കേരളത്തിലെ പത്തനംത്തിട്ട ജില്ലയിലാണ് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അവിടെ ശബരിമലയിലെ അയ്യപ്പ സാമി ക്ഷേത്രമാണുള്ളത് അയ്യപ്പനെ കാണാൻ വേണ്ടിയിട്ട് അയ്യപ്പ ഭക്തർ തുലാമാസത്തിൽ വൃശ്ചിക മാസം ഒക്കെ ആവുമ്പോൾ അമ്പലത്തിൽ പോയിട്ട് ശബരിമലയ്ക്ക് പോവാൻ വേണ്ടിയിട്ട് മാലയിടുന്നു വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നു അവരുടെ അവരുടെ എല്ലാ സുഖലോലുപം ആയിട്ടുള്ള ജീവിതങ്ങളൊക്കെ മാറ്റി വച്ച് അവരെ ഭക്തിയിൽ മുഴുകി ഒരു മണ്ഡലകാലം ത്ത് അവർ അവരുടെ ഭക്തിയിൽ മൊഴുകി നിൽക്കുന്നു അവരുടെ വിശ്വാസ പ്രകാരം ചെയ്യുന്നു അതുപോലെ നോമ്പെടുത്തു അവരെ കറുപ്പ് മുണ്ടൊക്കെ ഉടുത്ത് നോമ്പെടുത്ത് അവർ മലയിൽ മല കയറുന്നു മല എന്ന് പറയുന്നത് കല്ലും മുള്ളും മേടും നിറഞ്ഞ ഒരു കാടിനുള്ളിലാണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത് അവിടെ അയ്യപ്പ ഭക്തർ ധാരാളം ചെല്ലാറുണ്ട് ശബരിമലയിലെ ആ പതിനെട്ടാം പടിയുണ്ട് അങ്ങനെ അവരുടെ ആചാര പ്രകാരം അവരെ മകര വിളക്ക് ദർശനം ഉണ്ടാവാറുണ്ട് അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് അവർക്ക് പ്രസാദം ലഭിക്കുന്നു അരവണ പായസം എന്ന് പറയുന്ന പ്രസാദം കൊണ്ട് വരാറുണ്ട് അതെല്ലവരും കഴിക്കാറുണ്ട് അങ്ങനെ ശബരിമല പിന്നേ ഒരു മുസ്ലീം ആരാധനാലയമാണ് തിരുവന്തപുരത്തുള്ള ഭീമാപ്പള്ളി അതുപോലെ നമ്മുടെ സെൻ്റ് ഫിലോമിന ചർച്ച് അങ്ങനെ ഒരുപാട് മതകേന്ദ്രങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ കാണാറുണ്ട് നമ്മുടെ വ്യത്യസ്ത തലത്തിലും ഓരോ ആളുകളും അവരുടെ വിശ്വാസ പ്രകാരം അവരുടെ ആചാര അനുഷ്ടാനങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ട്